ഇപ്പോൾ നമ്മുടെ ഉള്ള സ സമ്പന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ കോഴിക്കോട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ആൾക്കാരെ ഒക്കെ നല്ല രീതിയില് മുന്നോട്ട് നയിച്ചത് അവരുടെ വ്യവസായവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ തന്നെ അതായത് ലുലു മാള് അങ്ങനെ ഉൾ അതായത് യൂസുഫ് അലി അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചിയില് ലുലു മാളുണ്ട് ഗൾഫില് കുറേ സ്ഥാപനങ്ങള് കാര്യങ്ങള് ഒക്കെ ഉണ്ട് അവരുടെ ലുലു മാള് അവരുടെ ഒരു പുബ്ലിസിറ്റിക്ക് വേണ്ടി അവര് ചെയ്യുന്നു പിന്നെ അവരുടെ വരുമാനത്തിനും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ തിരുവനന്തപുരത്തുണ്ട് പിന്നെ ദുബായിൽ അങ്ങനെ കുറെ സ്ഥലത്തുണ്ട് അപ്പം നല്ല രീതിയിൽ ഉള്ള ഒരു വ്യവസായ പ്രമുഖൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് യൂസുഫ് അലി തന്നെയാണ് പിന്നെ ഇഷ്ടംപോലെ മാളുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ അവരവരുടെ ഓരോരുത്തരുടെ കീഴിലൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ പറയാം